ക്രൈസ്തവ മതവിശ്വാസികളായ ഞങ്ങളുടെ മതത്തിൽ ഏറ്റവും വലിയ നേതാവായിട്ട് ഞങ്ങൾ യേശു യേശു യേശു ക്രിസ്തുവിനെ തന്നെയാണ് കാണുന്നത് ഈശോയുടെ അനുയായികളായ ഈശോയുടെ അനുയായികളായ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ജീവിതത്തിലും ക്രൈസ്തവ ജീവിതത്തിലും പ്രത്യേകിച്ച് പ്രത്യേകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് അതേ തുടർന്നുള്ള അവരുടെ സ്വാധീനത്തിൽ ഞങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ പുരോഹിത പുരോഹിതരും സന്യസ്തരും ആയ മതത്തിൻ്റെ അവരവരുടെതായ കാര്യങ്ങൾ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രൈസ്തവരായ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനം ചെലുത്തുന്നുണ്ട് അവരുടെ ഇപ്പോൾ നടത്തുന്ന ധ്യാന ഗുരുക്കൾ പ്രത്യേകിച്ച് കൂടെ കിട്ടുന്ന വിഷയങ്ങൾ അവരുടെ ഓരോ പ്രോഗ്രാമുകൾ അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെയും അരൂവീടെ സ്വാധീനത്തിലും ജീവിക്കാൻ ഞങ്ങൾക്ക് ഒത്തിരി സ്വാധീനം നൽകുന്നുണ്ട് അതുപോലെത്തന്നെ ഞങ്ങൾ ഈ ധ്യാന നമ്മുടെ ടി വി പ്രോഗ്രാമുകളിലായിട്ട് അല്ലേ ശാലോമിലും ഗുഡ്നെസ്സിലും ഒക്കെ കാണുന്ന പ്രോഗ്രാമുകൾ പുരോഹിതന്മാർ നടത്തുമ്പോളോ ആരാധനകളും ജപമാലകളും ഒക്കെ ഭക്തിപൂർവ്വം ഞങ്ങൾക്ക് പങ്കെടുക്കുവാനും ഞങ്ങളുടെ കുടുംബത്തിൽ അത് ഒത്തിരി സ്വാധീനം ചെലുത്തുവാനും വളരെയേറെ ഉപകരമായിട്ട് ഞങ്ങൾ കാണുന്നു മാതാപിതാക്കൾ ഇരുന്ന് വിഷയങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അവർക്ക് അവരുടെ കുട്ടികളോട് ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുവാനും ആ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രയോജനമായിട്ട് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട് പിന്നെ എപ്പോഴും പ്രാർത്ഥനയുടെ ഒരു സന്ദേശം ആയിരിക്കുമല്ലോ നമ്മുടെ പുരോഹിതരും സന്യസ്ഥരും ഒക്കെ ആയിട്ടുള്ള അവരുടെ ജീവിതത്തിൽ നിന്നും അവരുടെ അവർ പ്രവർത്തിക്കുന്ന വിവിധ മേഖലകളിൽ നിന്നും ഒക്കെ ഇടവക തലത്തിലും രൂപത തലത്തിലും ഫൊറോന തലത്തിലും ഒക്കെ ആയിട്ടുള്ള എല്ലാ ഇതിലും കുടുംബങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും അതിൻ്റേതായ സ്വാധീനം ജീവിതത്തിൽ നൽകാനായിട്ട് നന്നായിട്ട് കഴിയുന്നുണ്ട് പ്രാർത്ഥന രുവിലാണ് അവർ നമ്മൾ ജീവിക്കാനാണ് അവർ കൂടുതലും ഈശോയുടെ അടുത്ത് ഇടപെടാനും മറ്റുള്ളവരെ സഹായിക്കാനും പിന്നെ പ്രാർത്ഥനയിൽ എല്ലാരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാനും എല്ലാവർക്കും സഹായസഹകരണങ്ങൾ നൽകാനും ഒക്കെ ഒത്തിരി നല്ല പ്രബോധനങ്ങൾ നൽകി ഗുരുഭൂതന്മാർ വൈദികർ സന്യസ്ഥർ ഇവരെല്ലാം നല്ല പ്രയോജനം നൽകി നമ്മളെ സഹായിക്കുന്നു